ഇരുപത്തി എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്